എടീ അനിതെ എൻ്റെ പാസ്സ്പോർട്ടിൻ്റെ രസീത് കളഞ്ഞുപോയെടി അപേക്ഷ കൊടുത്തു എല്ലാം റെഡിയായതായിരുന്നു പക്ഷെ ഈ രസീത് ഇല്ലാതെ അപേക്ഷ ഇനി ഒന്നേന്നു വയ്ക്കണോന്ന് ആണ് എനിക്ക് തോന്നുന്നത് ഒന്നും അറിയത്തില്ല എങ്ങനെയെന്തോ എൻ്റെ കയ്യിന്ന് എങ്ങനെ മിസ് ആയെന്നും എനിക്കറിയില്ല ആകെ ഒരു ബുദ്ധിമുട്ടായി ഇനി എന്ത് ചെയ്യണം നിനക്ക് ഇതിനെപറ്റി വല്ലതും അറിയാമോ ഒന്ന് പറഞ്ഞുതാടി എനിക്കാണെങ്കിൽ ആകെ ഒരു വിഷമം ആയിപ്പോയി എങ്ങനേച്ചാ ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്നതായിരുന്നു പക്ഷെ എവിടെപ്പോയി എന്ന് എനിക്കൊരു രൂപവും ഇല്ല ഒന്ന് പറഞ്ഞുതാ ആ എന്നാല് ഞാനൊന്ന് പോയി നോക്കാം ഒന്നുകൂടെ അപേക്ഷ വച്ചു നോക്കാം മോളാണെങ്കില് വിളിച്ചോണ്ട് ഇരിക്കുന്നു എനിക്കാകെ ഒരു എന്നാ പേടിയും എന്നുവെച്ചാല് അവള് വിളിച്ചോണ്ടിരുന്നിട്ട് ഇത്രയും ദിവസമായിട്ട് അത് നടക്കിണുമില്ല അവൾക്കാണെങ്കില് ഭയങ്കര വിഷമവും അവള് എന്നെ ഇങ്ങനെ അമ്മ എന്ത് അമ്മയ്ക്കൊന്നും സൂക്ഷിക്കാൻ അറിയില്ലേ എന്നും പറഞ്ഞുംകൊണ്ട് വഴക്കും എല്ലാം തന്നെ എന്തുചെയ്യും എന്ന് ഒരു രൂപവും ഇല്ല ആ എന്തായാലും നീ പറഞ്ഞതുപോലെ ഒന്നൂടെ പോയിനോക്കാം അല്ലാതെ എന്ത് ചെയ്യാന് പറ്റും നമ്മളില്നിന്ന് കൈമോശം വന്നുപോയില്ലേ ഒന്നാമത് മറവി ഭയങ്കരം എല്ലാംകൊണ്ടും സുഖം എത്രയും പെട്ടെന്ന് അവള്ക്ക് അവിടെ എത്തുകയും വേണം പോവാനെല്ലാം റെഡി ആയതല്ലേ എന്ത് ചെയ്യാം ആ എന്തായാലും നീ പറഞ്ഞതിൻ്റെ രീതിയില് ഒന്നൂടെ അപേക്ഷ വച്ച് അത് താമസിക്കുമോ അതാണ് പേടി എത്രയും പെട്ടെന്ന് അങ്ങ് എത്തണേ എത്തുകയും വേണം ആ ഞാന് നിന്നെ എന്നിട്ട് വന്നിട്ട് വിളിക്കാം നോക്കട്ടെ ഇനി ഈ ഐഡിയ അവരൊക്കെ അറിയാം നമ്മളെ ഫോണില് ഉണ്ടെങ്കില് കൊടുക്കാന് പറ്റുമോ അങ്ങനെയൊന്നും എനിക്കറിഞ്ഞൂടാ എന്തായാലും ഒന്നൂടെ പോയി നോക്കാം ഏതായാലും പറ്റിപ്പോയില്ലേ ഇനി അതുതന്നെ ചെയ്യാം ഓ ഞാന് ശരി ഞാന് എന്തായാലും നാളെ തന്നെ ഒന്ന് പോയി നോക്കാം എല്ലാം ഒന്നേന്ന് റീ അപേക്ഷ വയ്ക്കാം അപ്പോൾ ശരിയാവുമായിരിക്കും ഏതായാലും വന്നിട്ട് വിളിക്കാം എന്തായാലും കുഴപ്പമില്ല ആ ഇനി എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് കിട്ടിയാല് മതിയായിരുന്നു ആകെ ഒരു വിഷമവും കൂടെ ആയിപ്പോയെടീ എന്തായാലും ഞാനെ ഞാന് എന്നാല് ഒന്നുകൂടെ പാസ്പോര്ട്ട് ഓഫീസില് പോവാം പോയിട്ട് എന്താണ് അവര് പറയുന്നതെന്ന് നോക്കാം പെട്ടെന്ന് കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നേ അറിയത്തില്ല എനിക്ക് ഞാനിത് ആദ്യമായിട്ട് കൊടുക്കണതല്ലേ ഞാനിതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പോള് പിള്ളേര് വിളിച്ചതുകൊണ്ട് പാസ്സ്പോർട്ടിന് അപേക്ഷിച്ചതാണ് അല്ലെങ്കില് കുഴപ്പമില്ലായിരുന്നു മോള് ഉണ്ടായിരുന്നെങ്കില് എല്ലാം പെട്ടെന്ന് റെഡിയായി കിട്ടിയേനെ അവള്ക്കതിൻ്റെ എല്ലാം എടുത്തു വയ്ക്കാനുമറിയാം എന്നാ ഫോണില്ലെങ്കിലും ഒരു രസീതിൻ്റെ പകർപ്പെടുത്തിട്ടിരുന്നാല് മതിയായിരുന്നു എങ്കില് കുഴപ്പമില്ലായിരുന്നു എല്ലാം അറിയാന് പറ്റുമായിരുന്നു അത് കാണിച്ചാലെങ്കിലും കിട്ടുമെന്നു തോന്നുന്നു എനിക്ക് ഇതിനെപറ്റി ഒന്നും അറിഞ്ഞൂടാരുന്നല്ലോ ഞാന് സൂക്ഷിച്ചുവെച്ചു എല്ലാ പേപ്പറും ഇരിക്കണതിൻ്റെകൂടെ ഞാനും വെച്ചു അതില്നിന്ന് എവിടെ പോയി എങ്ങനെ കൈമോശം വന്നെന്ന് എനിക്കറിയത്തില്ല ആ എന്തായാലും ഒന്നൂടെ ഒന്ന് പോയി നോക്കി ശരിയാക്കാം